ഞനൊരു പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു ഫ്രഡ്ജുവേണം ഒരു വാഷിംഗ് മെഷീൻ വേണം അതൊക്കെ എങ്ങനെയാണു എന്താണ് ആ ഒരു ആ അതെ എല്ലാ സാധനങ്ങളും വേണം ഇത് ഫ്രിഡ്ജ് ഇത് രണ്ടു ഡോർ ഉള്ളതാണ് ഇത് എന്ത് വില വരുന്നുണ്ട് എൽജിടെ എന്ത് വില വരുന്നുണ്ട് അപ്പോൾ ഇതോ അപ്പോൾ ഇതൊ

പതിനേഴു രൂപ ആ ഇത് ഇതല്ലേ നല്ലത് ഇതൊരെണ്ണം എടുക്കാം ഇതല്ലേ നല്ലത് എൽ പക്ഷെ നമുക്ക് ഗാരൻറ്റിയുണ്ടോ ഗാരൻറ്റിയാണോ വാറൻറ്റിയാണോ അപ്പോൾ ഇത് എന്തെങ്കിലും കേട് പിന്നെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കമ്പനിയിൽ നിന്ന് ആൾ വന്നു നേരെയാക്കുമോ അതോ ഞങ്ങൾ സാധനം ഇങ്ങോട്ടു കൊണ്ടുവരണമോ എങ്ങനെയാണ് നിങ്ങൾ ഇവിടുന്ന് ആരേലും വിടുമോ വീട്ടിലേക്ക് ആ അപ്പോൾ ഞാൻ ഇത് ഇതോരെണ്ണമെടുക്കാം പിന്നെ വാഷിംഗ് മെഷിനോ മുകളിൽ മുകളിൽ ഓപ്പണാക്കുന്നത് മതി ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്കല്ലേ നല്ലത് അതാകുമ്പോൾ നമ്മൾ ഓണാക്കി പോയിപറഞ്ഞാലും അത് വെള്ളം പിന്നെ ഇത് കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ നിക്കില്ലേ കറന്റ് പോകുവോ എന്തെങ്കിലും ചെയ്താൽ ഇത് എന്ത് വില വരുന്നതുണ്ട് ഓട്ടോമാറ്റിക്ക് മതി ഇതുമതി ഓട്ടോമാറ്റിക് മതി ഇത് മതി എനിക്ക് ആറു കിലോ തുണി അയ്യേ ആ കളറുവേണ്ട ഇതുമതി ഇതാണ് ഇത്തിരിയും കൂടി കാണാൻ ഭംഗി ആ ടീവി വേണം പറഞ്ഞു ടിവി വലുത് മതി

ന്നാ മൂപ്പത്തിയഞ്ചിൻ്റെയെന്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൽജിൻ്റെ തന്നെയെടുക്കാം എൽജിയല്ലേ ഇപ്പോൾ നല്ലത് എൽജിൻ്റെ മതി ഇതുമതി ഇതൊരെണ്ണം എടുക്കാം ആ ബിൽ ചെയ്യാം അല്ല ഇത് മൂന്നെണ്ണത്തിന് ഇത് എത്ര വരുന്നുണ്ടെന്നു നോക്കു മൂന്നുംകൂടിയൊന്ന് കൂട്ടു പൈസ ഡയറക്റ്റ് പൈസ തരുവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് തരുമ്പോൾ ഇതിലെത്ര ഞങ്ങൾക്ക് കുറവുള്ളത് ആ ശരിയാണ് ഡിസ്കൗണ്ട് വേണം കാരണം ഒന്നിച്ചു പൈസ തരുവല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടണം ശരി ഞാനവിടെ നിൽക്കാം